ഹലോ യാത്ര ട്രാവൽ ഏജൻസി അല്ലേ ആ എൻ്റെ പേര് നമിതയെന്ന് ആയിരുന്നു ഞാൻ കോട്ടയം നാഗമ്പടത്തു നിന്നായിരുന്നു വിളിക്കുന്നത് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോവാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് കൂടുതലും താൽപ്പര്യം ബീച്ച് സൈഡ്സിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ആയിരുന്നു പക്ഷെ എൻ്റെ കൂട്ടുകാർക്ക് പലർക്കും പല താല്പര്യങ്ങളാണ് അപ്പം ചിലർക്ക് മ്യൂസിയം ഉള്ള സ്ഥലത്ത് പോവാനും അല്ലെങ്കിൽ എന്താ മൗണ്ടൻസ് ഉള്ള സ്ഥലത്ത് പോവാനൊക്കെ ആയിരുന്നു ഇഷ്ടം അപ്പം എല്ലാത്തിനും കൂടി പറ്റിയ ഒരു സ്ഥലം വേണമായിരുന്നു

അല്ല ആ ഞങ്ങൾ കേരളത്തിന് അകത്ത് തന്നെ പോവാനായിരുന്നു നോക്കുന്നത് അപ്പം എൻ്റെ മൈൻ്റിൽ ട്രിവാൻഡ്രത്തിന് പോവാമെന്നായിരുന്നു അപ്പോൾ ട്രിവാൻഡ്രത്ത് ആവുമ്പോൾ ബീച്ചും ആ ഹിൽസാണെങ്കിലും പിന്നെ ആ മ്യൂസിയമാണെങ്കിലും ഉണ്ടല്ലോ അപ്പം എല്ലാം കൂടെ ചേർത്ത് ട്രിവാൻഡ്രത്ത് പോവാനായിരുന്നു നോക്കുന്നത് അപ്പം നിങ്ങൾക്ക് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഞങ്ങൾ മൂന്ന് ദിവസത്തെ ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്യുന്നത് ആ ഫുഡ്ഡ് ആൻഡ് അക്കൊമഡേഷൻ ഉണ്ടാകുമോ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ നിങ്ങൾ നാഗമ്പടത്ത് നിന്നാൽ മതിയോ നാഗമ്പടത്തുനി ന്ന് പിക്കപ്പ് ചെയ്യത്തില്ലെ ആ ഓക്കെ ഫുൾ പാക്കേജായിരുന്നു വേണ്ടത് ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ആറായിരം രൂപയല്ലേ ആ ഡീറ്റെയിൽസ് ഇപ്പം ഞങ്ങൾ ഫെബ്രുവരിയിലായിരുന്നു മെയിലി പോവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാം